ആ ഹലോ ഞാൻ ഇവിടെനിന്ന് ഓര്ഡർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഒരു ബെഡ് ഷീറ്റ് ആണ് ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഓര്ഡര് ചെയ്ത സാധനം എനിക്ക് ലഭിച്ചു പക്ഷെ ഞാന് ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു ക്വാളിറ്റി ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത് മെറ്റീരിയലും ശരിയല്ല എന്താ പറയുക നമുക്ക് നേരെ യൂസ് ചെയ്യാന് പറ്റില്ല നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിന്റെ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ഉല്പന്നമാണ് കിട്ടുകയെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള നിങ്ങളെങ്ങനെയാ അത് റിട്ടേണ് ചെയ്യാന് എടുക്കാന് വരുമോ എന്താണ് ഇതിനുള്ള അടുത്ത നടപടി ആയിട്ട് എന്താണ് ചെയ്യാന് ഉദ്ദേശിക്കുന്നത്